ഹലോ നമസ്കാരം പറയൂ എ അതെ അതെ പറയൂ അയറ്റ് ക്ലിനിക് ആണ് പറയൂ അ ആണോ ആണോ ആണോ പറയൂ ആ ആ എവിടുന്നാണ് വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണല്ലേ ഓക്കെ ഓക്കെ ആ അറിയാം അറിയാം ആ ഉണ്ട് ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ ആ പറയൂ പറയൂ എന്തൊക്കെയാണ് പ്രശ്നം എന്താണ് ആ തൈറോയ്ഡ് പോലത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ആ എ എന്താണെന്ന് വെച്ചാൽ ബേയ്സ് ആയിട്ട് തന്നെ നമ്മൾ ഹെൽത്തിൻ്റെ തൈറോയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആറ് മാസം കൂടുമ്പോളെങ്കിലും ചെക്ക് ചെയ്യണം ആ അതെ ആ ഉം ആ അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രശ്നമാണ് കാരണം ഫുഡ്ഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണത് ഇപ്പം ഹെൽത്തി ഫുഡ് ആയിരിക്കണം എന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പോൾ അത് നമ്മൾ സ്വയം സ്വീകരിച്ചാൽ സ്വയം മനസ്സിലാക്കിയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് നമ്മൾ ഒരാൾ പറഞ്ഞുതന്നാലും ഒന്നും ആ ഒരു മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ ആ ആ പിരീഡ്സ് ആ ഓക്കെ ആ ഓക്കെ ഇപ്പം ഈ പിരീഡ്സ് ഇറെഗുലാരിറ്റി അതുപോലെ ഈ ഓവർവെയിറ്റ് ആണോ ബി എം ഐ ഒക്കെ നോക്കിയിട്ടുണ്ടോ ബി എം ഐ വെയിറ്റ് ഹൈറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ആ അന്ന് എങ്ങനെയാണ് ഓവർവെയ്റ്റ് ഓവർവെയിറ്റ് ആണ് കാണിക്കുന്നത് ഓ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ ഓക്കെ ആ പിന്നെ നിങ്ങൾ നേരിട്ട് വരൂ കാരണം നിങ്ങളെ ഒരു അപ്പിയറൻസും കാര്യങ്ങളും ഇപ്പം ബി എം ഐ കൂടാതെ നമുക്ക് വേറെയും കുറേ ടെസ്റ്റ് നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ക്യാലറി ഫുഡ് കൺട്രോളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ സാധിക്കും അതെ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ബോഡി ഒന്ന് ഒന്ന് ഹെൽത്തി മെയിൻറെയിൻ ആ ഒരു ഇതാണ് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫുഡ് ഫുഡ് ഒക്കെ നമ്മൾ തന്നെ നോക്കണം ച ഒരാൾക്ക് ഒരു ക്യാലറി ഇത്ര ക്യാലറി കഴിക്കണം അങ്ങനെ ഒക്കെയുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു എല്ലാം നോക്കിയിട്ട് കാര്യമില്ല അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോളാണ് ബോഡിക്കത് കാണുളളൂ വേറെ മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ആൾ ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മെഡിസിൻസ് കഴിക്കുന്ന സ്ഥിരമായിട്ട് വല്ല മെഡിസിൻസോ അല്ലെങ്കിൽ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് വരൂ ക്ലിനിക്കിലേക്ക് വരൂ ആ ഓക്കെ ഓക്കെ ഇറങ്ങ് ഓക്കെ സ